ഞാൻ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിനു വേണ്ടിയിട്ട് പാചകം ഒരു വലിയ ആൾക്കൂട്ടത്തിനു വേണ്ടി പാചകം ചെയ്യുകയുണ്ടായി അതായത് ഞങ്ങളുടെ അമ്പലത്തിൽ കർക്കിടക മാസം മുഴുവൻ ഭക്ഷണം നൽകുന്ന ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയിൽ എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയായിരുന്നു അതായത് ഉച്ചസമയത്ത് അവർക്ക് മൃഷ്ടാന്ന ഭോജനം അതായത് സദ്യ പോലെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത് അതുകൊണ്ടുതന്നെ ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു അതായത് ചോറ് സാമ്പാർ അവിയൽ എലിശ്ശേരി പുളിശ്ശേരി പപ്പടം അച്ചാർ രസം എന്നിവയെല്ലാം ഉണ്ടാക്കി കൊടുത്തു അതിനെന്നെ സഹായിക്കാൻ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു എങ്കിലും എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം നോക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കണ്ടത് എല്ലാത്തിൻ്റെയും ഉപ്പ് മുളക് എല്ലാത്തിൻ്റെയും പാകം നോക്കണ്ടത് എല്ലാം എൻ്റെ ചുമതലയിൽ ആയിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ച് എല്ലാ ഭക്ഷണവും കറക്റ്റ് ആയ രീതിയിൽ തന്നെ വെക്കാനും അത് നല്ല രീതിയിൽ എല്ലാ ജനങ്ങൾക്കും വിളമ്പി കൊടുക്കാനും ശ്രദ്ധിച്ചു അത് എൻ്റെ വലിയ ഒരു അനുഭവമാണ്